ആ പറഞ്ഞോളൂ അതെ ആ അതെ അതെ അല്ല അത് നമ്മൾ ട്രിപ്പ് ആയതാണ് മോട്ടറിൻ്റെ മോട്ടർ ഇടുമ്പോൾ ഇവിടെ ട്രിപ്പ് ആവുകയാണ് എന്താണെന്ന് അറിയില്ല അതെ വോൾട്ടേജിൻ്റ പ്രശ്നം ആണോ അതെ എന്താണ് ആ മെയിന് തന്നെ കൊടുത്തിരിക്കുന്നത് ഫ്രിഡ്ജ് ഇടുമ്പം കുഴപ്പമില്ല മോട്ടറ് ഇടുമ്പം മാത്രം ട്രിപ്പ് ആവുകയാണ് എ സി ഇല്ല കുഴപ്പം ഇല്ല ആ മോട്ടറിൻ്റ മാത്രം അതെ കുറച്ച് ആ മെയിൻ സ്വിച്ച് ഉള്ളിൽതന്നെ ആണ് അല്ല മെയിൻ സ്വിച്ച് പുറത്തുണ്ട്

ആ അത് ഉള്ളിലാണ്

ഇല്ല അത് എല്ലാം ഓൺ ആണ് കുറച്ചു നേരം ഓടുമ്പോഴാണ് ഓഫ് ആവുന്നത് മോട്ടറെ

രാവിലെ ആണ് നേരത്തെ ഇല്ല വൈകും എപ്പോഴും രാവിലെയാണ് ഇടുക പക്ഷെ വൈകീട്ട് ഇട്ടാലും കുറച്ച് നേരം ഓടിക്കഴിഞ്ഞാൽ ഓഫ് ആവും

ആ അല്ല ഫ്രിഡ്ജ് എല്ലാം ഓഫ് ചെയ്തു നോക്കി പക്ഷെ എന്നിട്ടും ശരി ആവുന്നില്ല

അതെയോ ഇതിൽ ആ അതെ അതെ ആ ആ അതെയോ നമുക്ക് ഓ ഏട്ടൻ ശനിയാഴ്ച വരും സംസാരിച്ച് അല്ല അതിൻ്റ ഇടയിൽ ഇത് നേരെ ആക്കാൻ പറ്റിയാൽ കുഴപ്പം ഇല്ല ഓക്കെ ആ ഓക്കെ ഓക്കെ നമുക്ക് നാളെ ആവുമ്പോഴേക്കും മോട്ടർ ഇടുന്ന മാതിരി വെള്ളം കുറവ് ആണ് അതുകൊണ്ടാണ് ആ ഓ ശരി ശരി ഓക്കെ ശരി